ആ മെക്കാനിക്കാണ് ആ അതെ അതെ അതെ ആ പറയൂ ആ ഓക്കെ ഓക്കെ പറഞ്ഞോ ആ ഏതായിരുന്നു ലാപ്പ് അസ്യൂസിൻ്റെ അല്ലേ അസ്യൂസിൻ്റെ ടഫായിരിക്കും ആ ഇപ്പോൾ എന്താണ് ഇഷ്യൂ എന്താണ് കമ്പ്യൂട്ടറിനാണോ ലാപ്ടോപ്പിനാണോ ഇഷ്യൂ

ആ ഓക്കെ ആണോ ബ്രോ അപ്ഡേറ്റ് ചെയ്തായിരുന്നോ അതെയല്ലേ അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്തായിരുന്നോ ആ എന്നാൽ അപ്ഡേറ്റ് ചെയ്തതിൻ്റേതായിട്ട് ആയിരിക്കും വരാൻ ചാൻസ് നമുക്ക് ഷോപ്പിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊന്ന്

ആ അസ്യൂസിൻ്റെ ഇതാവുമ്പോൾ നമുക്കിപ്പോൾ ഡിസ്പ്ലേ മാറ്റാണ്ട് ചെയ്യാൻ പറ്റുമോയെന്നുള്ളതും ഷോപ്പിൽ വന്നു നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു നാലായിരം അയ്യായിരം റേഞ്ചാവും ഇതിൻ്റെ ഡിസ്പ്ലേയ്ക്ക് ഒരു ആറായിരം ആവും നല്ല ഡിസ്പ്ലേ ആ ഉള്ള ഡിസ്പ്ലേ തന്നെ നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ തീരും പിന്നെ കീബോഡിൻ്റെ ഇഷ്യു ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആ അത് മിക്കവാറും ആ ഒരു ബട്ടണിൻ്റെ ബുഷ് പോയതായിരിക്കും അത് നമുക്ക് നോക്കിയിട്ട് സെറ്റാക്കാം അങ്ങനത്തെ ഒരിഷ്യുവേ ഉള്ളൂ നമ്മൾ മാനന്തവാടി ആ മാനന്തവാടി പായോട് എത്തിച്ചോ ആ ഓക്കെ മാനന്തവാടി പായോട് എന്നു പറഞ്ഞ സ്ഥലമുണ്ട്

പത്തരയ്ക്കെത്താനാണോ ആ അതിന് വാറൻ്റി ഉള്ളതാണോ ആ ചെക്ക് ചെയ്തിട്ടെന്നാൽ അതിൻ്റെ ഫുൾ കിറ്റ് ബാറ്ററി എടുത്തിട്ടുപോര് നമുക്ക് നോക്കിനോക്കാം പത്തരയാവുമ്പോഴേക്കെത്തിക്കോ ഓക്കെ പായോടുതന്നെ പായോട് ബസ്റ്റോപ്പിന് നേരെ മുമ്പിൽ എൻ്റെ പേര് ശ്രേയസ് ഓക്കെ വാ